ഇപ്പം നമ്മളുടെ കോഴിക്കോട് ജില്ലയിലാണെങ്കിലും ശരി ഏതൊരു സ്ഥലത്തും കുറ്റ കൃത്യം കൂടുതലായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്നാമത് തൊഴിലില്ലായ്മ പിന്നെ അതുകൊണ്ട് ആണ് കൂടുതലായിട്ട് ഇങ്ങനത്തെ പണത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മറ്റ് പല ദൂര രാജ്യങ്ങളിലും കേട്ട് അറിവേ ഉള്ളായിരുന്നുള്ളു ഇങ്ങനത്തെ കുറ്റ കൃത്യങ്ങളെ പറ്റി ഒക്ക അല്ലാണ്ട് നമ്മുടെ നാട്ടിൻ പുറത്ത് ഇങ്ങനെ ഒരു കാര്യങ്ങളേ ഇല്ലായിരുന്നു ഇപ്പോഴത്തെ ആണെങ്കിൽ ദിവസവും നമ്മുടെ തൊട്ടടുത്ത വീട്ടിൻ്റെ അരികത്തോ അല്ലെങ്കിൽ അയൽവാസി അല്ലെങ്കിൽ അടുത്ത എന്താ പറയുക അടുത്ത ഗ്രാമത്തിലോ അങ്ങനെ ഒക്കെ അപ്പോൾ അങ്ങനെ കുറ്റ കൃത്യങ്ങൾ ചെയ്യുന്നുണ്ട് ആൾക്കാർ ഒന്നാമത് കയ്യിൽ പൈസ ഇല്ല ഈ കോവിഡ് വന്നതിന് ശേഷം ആര കയ്യിലും പൈസ ഇല്ല മര്യാതക്ക് ജോലി ഇല്ല അതൊക്കെയാണ് കാരണം